ആ ഇത് അബഹാം ഹോട്ടലല്ലേ ഇവിടുത്തെ അക്കോമഡേഷനെപ്പറ്റി അറിയാൻ വേണ്ടിയായിരുന്നേ അതിൻ്റെ റേറ്റ് നാളെ കഴിഞ്ഞത്തേക്കിന് ആ ആ ആ ഫാമിലിയായിട്ടാണ് ഡബിൾ റൂമാണ് വേണ്ടത് കിഡ്സ് വേണ്ട കിഡ്സ് വേണ്ട പെർ ഡേ ഫിഫ്റ്റീൻ തൗസൻഡോ ഓക്കേ ഓക്കേ അപ്പോൾ ഫുഡ് കാര്യങ്ങളെല്ലാം ആ വേറെയെന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെയുണ്ടെന്നൊന്നു എക്സ്പ്ലെയിൻ ചെയ്യാവോ ഈയെല്ലാമെന്നുദ്ദേശിക്കുന്നത് ലോകോത്തരനിലവാരം എന്ന് പറയുമ്പോൾ നിങ്ങളെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഹോസ്പിറ്റാലിറ്റി പഠിച്ചവരാണോ ഇവിടെ ഉള്ളവരൊക്കെ ഓക്കേ ഓക്കേ ഓക്കേ ആ എനിവെയ്സ് ഒരു റൂം ബുക്ക് ചെയ്തോളൂ ഒരു ഫാമിലി ബെഡ്റൂം ഓക്കേ ഓക്കേ ആ ഐ വിൽ പേ ദാറ്റ് ഓക്കേ മാഡം അല്ല താങ്ക്യൂ താങ്ക്യൂ സർ ഓക്കേ ഓക്കേ വെൽക്കം